ഞാൻ ഒരു ക്രിസ്ത്യാനിയാണ് ക്രിസ്ത്യാനിയുടെ മതഗ്രന്ഥമായ ബൈബിളിൽ പറയുന്നു കാണപ്പെടാത്ത സഹോദരനെ സ്നേഹിക്കാത്തവർക്ക് കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവർക്ക് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുകയില്ല ദൈവത്തെ സ്നേഹിക്കുക എന്നത് നമ്മളുടെ സഹോദരങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മളുടെ നമ്മളുടെ തൊട്ട് അടുത്തുള്ള സഹോദരങ്ങൾക്ക് ആവശ്യമായ നന്മകൾ ചെയ്തു കൊടുക്കുന്നതിലൂടെയാണ് പലപ്പോഴും നമ്മൾ ഈ കാര്യങ്ങൾ മറന്നുകൊണ്ടാണ് സഹോദരന് വേണ്ടി യാതൊന്നും ചെയ്യാതെ പലപ്പോഴും ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നു ദേവാലയത്തിൽ പോകുന്നു പ്രാർത്ഥിക്കുന്നു മറ്റുള്ളവരുടെ ആവശ്യങ്ങളിലേക്ക് അവർ ഒരു കൈ ചെറുവിരൽ അനക്കാൻ പോലും നമ്മൾക്ക് ഇന്ന് സാധിക്കാൻ കഴിയാതെ വരുന്നു നമുക്ക് പല കാര്യങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കും ഇപ്പോൾ നമ്മളെ തൊട്ട അയൽവക്കത്ത് ഒരു രോഗിയുണ്ട് അവർക്ക് വേണ്ടുന്ന ശുശ്രൂഷകൾ ചെയ്യുക അല്ലെങ്കിൽ അവർക്ക് വേണ്ട സാമ്പത്തിക സഹായം നൽകുക അല്ലെങ്കിൽ രോഗിയെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിന് സഹായിക്കാം അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ സേവനം അവർക്ക് ലഭ്യമാക്കി കൊടുക്കാം അങ്ങനെ പല കാര്യങ്ങളും നമ്മൾക്ക് ചെയ്യാൻ സാധിക്കും അതു പോലെ തന്നെ ഒരു പാവപ്പെട്ട കുടുംബത്തിലെ വിദ്യാർത്ഥിയെ പഠിപ്പിക്കുന്നതിനോ അവന് ബുക്കുകൾ വാങ്ങി നൽകുന്നതിനോ അവന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനോ ഒക്കെ നമ്മൾക്ക് സാധിക്കുമെങ്കിൽ അത് ഒരു സാമൂഹിക സേവനം തന്നെയാണ് അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ ധാരാളം എന്താണ് പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരുണ്ട് അവരെയൊക്കെ ഒന്ന് സഹായിക്കാൻ കഴിയുന്നത് പലപ്പോഴും പലപ്പോഴും ദൈവ സന്നിധിയിൽ വളരെ വിലയുള്ള ഒരു കാര്യമാണ് അതാണല്ലോ മദർ തെരേസ ചെയ്തുകൊണ്ടിരുന്നത് നമ്മളുടെ സമൂഹത്തിലെ ഏറ്റവും രോഗികളും ആലംബഹീനരും ആയിരുന്ന അവരെ ശുശ്രൂഷിക്കുക അവർക്ക് വേണ്ട സേവനങ്ങൾ ചെയ്തുകൊടുക്കുകയും ചെയ്തപ്പോഴാണല്ലോ മദർ തെരേസ ദൈവത്തിനു മുമ്പിൽ ഏറ്റവും വലിയവളായി തീർന്നത് നമ്മൾക്ക് അത്രയൊന്നും ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും നമ്മളുടെ തൊട്ടടുത്ത സഹോദരങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ സാധിക്കുന്നത് ചെയ്യാൻ സാധിക്കുമെന്നത് വലിയ കാര്യമാണ് അവരുടെ ആവശ്യങ്ങൾ അവരെ സഹായിക്കുക അത് പോലെ തന്നെ പഠിപ്പും അറിവില്ലാത്ത കുട്ടികൾക്ക് നമ്മൾക്ക് അറിയാവുന്ന കാര്യം അറിവില്ലാത്തവർക്ക് നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക അതും ഒരു സാമൂഹിക സേവനമാണ് പിന്നെ നമ്മൾക്ക് പറ്റുന്ന എന്ത് കാര്യങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുമ്പോൾ അതൊരു സാമൂഹിക സേവനമായി തീരുന്നു പലപ്പോഴും നമ്മളുടെ സമൂഹം നമ്മളിലേക്ക് മാത്രം ഒതുങ്ങി അവനവൻ്റെ കാര്യങ്ങളിലേക്ക് അവനവൻ്റെ നന്മയ്ക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നുവെന്ന് മറ്റുള്ളവരെ ഒരിക്കലും പരിഗണിക്കാതെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി സ്വാർത്ഥതയിലൂടെ മാത്രം ജീവിക്കുന്ന മനുഷ്യരാണ് ഇന്ന് നമ്മുടെ ഇടയിൽ ഉള്ളത്